നമ്മുടെ സമൂഹത്തിലെ പല കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ തിന്മയിലുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരു വാർത്താവിനിമയ വർത്തവിനിമയത്തിലെ എല്ലാ സത്യ വാർത്തകളൊന്നും പലപ്പോഴും പുറത്തു വരാറില്ല ചിലർ അതിനെ മറച്ച് വയ്ക്കാറുണ്ട് ചിലർ അതിനെ ചില മാധ്യമങ്ങളാണെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചത് വാർത്തയായിട്ട് കൊണ്ട്രുമ്പഴ്ത്തെത്തന്നെ മറ്റുള്ള അല്ലേ രാഷ്ട്രീയ തലത്തിലുള്ള അല്ലേ വല്ല പോലീസുദ്യോഗസ്ഥരർ അല്ലേ ഇങ്ങനെയുള്ള മേഖലയിലുള്ള ആർക്കാരുടെ കടന്നു കയറ്റം ഉള്ളതു കൊണ്ടായിരിക്കാം പല സത്യാവസ്ഥകൾ ഇറങ്ങിയത് മേഖലകൾ പുറത്ത് വരാൻ സാധിക്കാത്തത് എന്നാണ് എൻ്റെ കാഴ്ച്ചപ്പാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ മനോഭാവങ്ങൾ എൻ്റെ ചിന്തകൾ ഇതൊക്കെയാണ് കാരണം പലപ്പോഴും പല സത്യങ്ങൾ പുറത്തു വരുമ്പോൾ പല കുറ്റകൃത്യങ്ങൾ തെളിയിച്ചു വരുമ്പോൾ പല ഉന്നതർക്ക് അതിനകത്ത് പങ്കുണ്ട് അല്ലെങ്കിൽ പല കുറ്റകൃത്യങ്ങളെയും കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന ഓരോ മറ്റുള്ളവരുടെ ലോഹത്തിൽ കാഴ്ച്ചപ്പാടില്ല അതൊരു വലിയ ബുന്ധിമുട്ടും പ്രയാസവുമുള്ളതായിട്ട് തോന്നുന്നത് കൊണ്ട് ചിലർ അത് പറയുന്നില്ല ചിലവർക്ക് ഇവറ്റകളെ കാണുമ്പോൾ ചലർ പീഡിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തനിക്ക് അപമാനങ്ങളുണ്ടാകുന്ന ചില കുറ്റങ്ങളായിരിക്കാം ചിലപ്പോൾ അത് സമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ അതേ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന പേരിലുള്ള പേരിൽ പല കുറ്റങ്ങളൊക്കെ പൊതുവെയൊക്കെ മറച്ചുവെക്കുവാൻവേണ്ടിട്ട് അവര് പലരുവത് സവാർത്തകള് സത്യമായിട്ടും പൊറത്ത് പറയാതിരിക്കുന്ന വാർത്തകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളുടെ നിലവിലുള്ള പ്രാധാന്യം വിലയിരുത്തുന്നത് അനുസരിച്ച് വരുമ്പോൾ പ്രാധാന്യങ്ങൾ അതിന് കൊടുക്കാനും ചില പ്രധാനപ്പെട്ട വാർത്തകൾക്ക് അതിന് വളരെ പ്രാധാന്യം അത് അർഹിക്കുന്ന രീതിയിലുള്ള പബ്ലിസിറ്റി അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അല്ലെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുവാനായിട്ട് പലപ്പോഴും പലരും തങ്ങളുടേതായിട്ടുള്ള വാർത്ത തങ്ങളുടെ ചാനലുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ കാണേണ്ട വ്യഗ്രതയിലായിട്ട് അവർ ചില സത്യങ്ങൾ വളച്ചു ഒടിച്ച് ചില ന്യൂസുകളൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ ഇന്ന് കാണാറുണ്ട് പലപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ബഹളത്തിന് നമ്മുടെ ഈ ഇത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഒത്തിരി വളച്ചൊടിച്ചു വിവരിച്ച് ഇങ്ങനെ വർത്തകളായിട്ട് വരാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ ഒരു വർത്ത ഉണ്ടായി കഴിയുമ്പോൾ ഒരു സംഭവമുണ്ടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയേണ്ടതാണെങ്കിൽ ലോകം അറിയേണ്ടതാണെങ്കിൽ അത് പലയിടങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് പലരും വൈമനസ്യം കാണിക്കുന്നതു കൊണ്ട് ചിലർ എന്നാലും അത് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇപ്പൊൾ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അന്നേരം അന്നേരാണെങ്കിൽ ഇപ്പോൾ ഈ നമ്മുടെ വാർത്താ വിനിമയങ്ങളൊക്കെ എത്രമാത്രം ആധുനികമായിട്ട് വളർന്നിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു കോൾ വഴിയാണെങ്കിലും എത്തിക്കാനായിട്ട് സാധിക്കുന്നു അതുപോലെത്തന്നെ ആ ഒരു ഉരുൾ പൊട്ടുമ്പോഴല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭമുണ്ടാകുമ്പോൾ തൊട്ടടുത്ത ജില്ലകളിലേക്കുള്ള നമ്മൾക്ക് മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ ഈ നമ്മുടെ ഫോണു വഴി അല്ലെങ്കിൽ നെറ്റ് വഴിയൊക്കെ നമുക്ക് ലോകത്തിൽ അറിയിക്കാനായിട്ട് സാധിക്കും അങ്ങനെ അപകടകരമായത് എന്തെങ്കിലും അപകടമുണ്ടാകുന്നതിനെ റ്റി പറ്റി മുൻകൂട്ടി അറിയിക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾത്തന്നെ അത് ലോകത്തെ അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദുരിതങ്ങളുണ്ടാകുമ്പോൾ അതു പോലെ തന്നെ മാധ്യമങ്ങൾ അത്ര മാത്രം അവരെ തീഷ്ണതയോടു കൂടിയാണ് മറ്റുള്ളവരിലേയ്ക്ക് അത് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു നന്മയുണ്ട് അതുപോലെ തന്നെ അതിനകത്തെ സത്യങ്ങളെ വളച്ചൊടിക്കുന്നുണ്ട് ചിലപ്പോൾ സത്യമാണെങ്കിൽ അതിനെ മൂടി വയ്ക്കുന്നതായിട്ടുള്ള വാർത്ത മാധ്യമങ്ങളുണ്ട് ചിലപ്പോൾ ചിലർക്ക് ചില രാഷ്ട്ര നേതാക്കൻമാരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അതൊക്കെ പൊതിഞ്ഞ് വച്ചു കൊണ്ട് സംസാരിക്കുന്നവരുണ്ട് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലെ എല്ലാം മേഖലയിൽ ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ ഇ മേഖല വർത്താ വിനിമയ മേഖലകൾലെ അത് തങ്ങളുടെ കാര്യ സാധ്യത്തിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചാനലുകളും വാർത്തവിനിമയങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം